ആ ഹലോ ഇത് റിസെപ്ഷനാണോ ഞാൻ റൂം നമ്പർ ത്രിബിൾ ത്രീയിലെ കസ്റ്റമറായിരുന്നെ ഇവിടെ റൂമിലൊക്കെ ഭയങ്കര ഒരു ഇൻസെക്ടറ്റും ഉറുമ്പുക്കെയാ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല മിസ്റ്റേക്ക് പറ്റിയത് ഒന്നും അല്ല ഇവിടെ ഭയങ്കര പ്രാണിയും കൊതുവും ഒക്കെയാ പിന്നെ ഇവിടെ ടബിലൊക്കെ ഇപ്പോഴും ചെളിയൊക്കെയുണ്ട് ഞാൻ കള്ളം പറയുന്നതാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ചിലപ്പം നിങ്ങൾക്ക് ഈ റൂം മിസ്സായതായിരിക്കും പക്ഷെ എൻ്റെ ഈ മുറിയിൽ ഭയങ്കര ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷനുണ്ടോ ഇതിന് ഇവിടെ എല്ലാ റൂമും ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും കൊടുക്കുന്നത് എനിക്ക് ഈ റൂമില് ഇപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ നിങ്ങൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് തരണം അല്ലെങ്കിൽ ഈ റൂം ഇപ്പോൾ ക്ലീൻ ചെയ്യുമോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണം അല്ലാതെ എനിക്ക് ഈ റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല ഒക്കെ നിങ്ങൾ പിന്നെ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് കോമ്പൻസേഷൻ തരേണ്ടിവരും കാരണം ഇതുപോലെ ഒരു ക്ലീൻ ചെയ്യാത്ത റൂമിലാണ് നിങ്ങളെന്നെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു ഞാൻ പിന്നെ നിങ്ങളുടെ ഒരു വി ഐ പി ഗെസ്റ്റാണ് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും മിസ്റ്റർ നിങ്ങൾ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം ഇത് നിങ്ങളുടെ ഒരു ഹോട്ടലാണ് ഞാൻ ഇവിടെ പലതവണ വന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് റൂം ഇങ്ങനെയാണ് തരാറ് ഇതിൻ്റെ പേരിൽ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് വീണ്ടും ഇതിന് എന്തെങ്കിലും ഒരു സൊലൂഷൻ കിട്ടിയേ പറ്റൂ പേർമനെൻറ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ ഇപ്പം തന്നെ സംസാരിക്കാം ഇത് എപ്പോഴും എപ്പോഴും എനിക്ക് നടക്കുന്നൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേഷനോട് സംസാരിക്കാമെന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഒക്കെ അനാസ്ഥ കാരണം ആണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എംപ്ലോയിസ് ഇത് കറക്റ്റ് ആയിട്ട് ചെയുന്നില്ല നിങ്ങൾ ഞാൻ റെഗുലർ കസ്റ്റമറാണ് എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഈ റൂം ഇതുപോലെ വൃത്തികേടായിട്ട് എനിക്ക് തരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എപ്പോഴും വരുന്ന ഒരാളല്ലേ ഇവിടെ ഞാൻ പുതിയതല്ല പലപ്പോഴും എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഞാൻ ഇതിനുമുമ്പ് ഇവിടുത്തെ ക്ലീനിങ് ഡിപ്പാർട്മെറ്റിൻറ്റെ ഹെഡിനോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇഷ്യൂ ഞാൻ അഡ്രസ് ചെയ്തതാണ് അവരോട് ഇതുവരെ നിങ്ങളതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനോട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും അതെ നിങ്ങൾ പറയുന്നതുപോലെ ഞാൻ ചെയ്യാം എനിക്ക് പക്ഷെ ഈ റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ നിങ്ങൾ വന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് വേറെ റൂം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തരണം